ആ ഹലോ സാർ കുട്ടമ്മൽ സ്കൂളല്ലേ കുട്ടമ്മൽ സ്കൂളിലെ പ്രിൻസിപ്പാൾ ആണല്ലോ അല്ലേ സാർ എൻ്റെ കുട്ടി ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കുടുംബം ആയിട്ട് ഒരു ടൂറ് പോവാൻ ഉദ്ദേശിക്കുകയാണ് അഞ്ചു ദിവസത്തെ ഒരു ലീവ് വേണം അപ്പം അപ്പം ക്ലാസ്സ് ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു അപ്പോൾ ക്ലാസ്സ് ടീച്ചറ് പറഞ്ഞു പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ചോദിക്കാം ചോദിക്കട്ടെ ചോദിക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് സാറിനോട് ചോദിച്ചത് അതെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ടൂറാണെ അപ്പോൾ ഇവനെ മാത്രമായിട്ട് അങ്ങ് മാറ്റി നിർത്തിയിട്ട് പോകാനും പറ്റത്തില്ല അപ്പോൾ സാറ് എങ്ങനെയെങ്കിലുമൊരു അഞ്ചു ദിവസത്തെ ലീവ് തരണം ഞങ്ങൾ അവന് ട്യൂഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാം ആ ഏകദേശം നയൻ്റി പേഴ്സൻ്റേജിന് മുകളിൽ മാർക്കുണ്ട് അതെ ആ അതെ സാർ ആ അറ്റൻ്റൻസും കൂടുതലുണ്ട് എല്ലാ എല്ലാം എല്ലാത്തിനും നയൻ്റി പേഴ്സൻ്റേജ് മാർക്കുമുണ്ട് ആ ഏഹ് ഇല്ല സാർ നോട്ട്സ് നോട്ട്സ് എല്ലാം ഒന്ന് എല്ലാം എഴുതിയെടുത്ത് എല്ലാം ഈസിയായിട്ട് അവൻ പഠിച്ചുകൊളളും ട്യൂഷനും കൂടെ കൊടുത്ത് എന്താ എന്താണെന്നു വച്ചാൽ ഞങ്ങളത് അതിൻ്റെ അതിൻ്റെ വേണ്ട ഹെൽപ്പെല്ലാം ചെയ്തു കൊടുത്തോളം ഈ ഈ മാസം ലാസ്റ്റാണ് അതായത് ഈ നവംബർ മാസം ഫസ്റ്റ് വീക്ക് ഓക്കെ ഒരു ഫൈവ് ഡെയ്സാണ് ആ ഫിക്സ് ഓക്കെ ഫിക്സ് ചെയ്തുപോയി ടൂറിൽ സാർ ഫിക്സ് ചെയ്തുപോയി

ആ ഇല്ല അവന് വേണ്ട എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്തു കൊടുക്കാം സാർ ട്യൂഷനും നോട്ട്സും എല്ലാം എഴുതി കംപ്ലീറ്റ് ചെയ്ത് നന്നായിട്ട് പഠിപ്പിച്ച് പഠിക്കാൻ പറഞ്ഞുകൊളളാം പിന്നെ റീടെസ്റ്റ് ഇട്ടാലും മതി സാർ അതേ റീടെസ്റ്റ് ഇടാൻ പറ്റുമോ ഓക്കെ സർ ഓക്കെ സാർ ഓക്കെ സാർ പിന്നെ ലീവ് ലെറ്റർ എഴുതി കൊടുത്തയക്കട്ടേ

ഓക്കെ സാർ ആ ടീച്ചറിൻ്റെ പേര് മേരി മേരി ടീച്ചർ

ഓക്കെ കൊടുക്കാം കൊടുത്തയക്കാം സാർ ഓക്കെ സാർ താങ്ക് യു